ഞങ്ങളുടെ സമുദായത്തിൽ ഇന്നും കാളകളെ ഉപയോഗിച്ചാണ് നിലം ഉഴുതു റെഡിയാക്കുന്നത് വളരെ കുറച്ച് ആൾക്കാര് മാത്രമേ ഇന്നത്തെ രീതിയിലുള്ള ട്രാക്ടറോ അല്ലെങ്കിൽ അതുപോലുള്ള ആധുനികമായ മിഷ്യനുകളെ ഉപയോഗിക്കുന്നുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ അതേപോലെ മനുഷ്യർ തന്നെയാണ് അതായത് സ്ത്രീകൾ തന്നെയാണ് അന്നും ഇന്നും ഞാറു പറിക്കുന്നതും നടുന്നതും എല്ലാം അതേ സമയം ഇതിനെയെല്ലാം മിഷ്യനുകൾ വന്നിട്ടുണ്ട് എങ്കിലും ഇതൊന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് വരാത്ത വരാത്തതാണ് അതായത് ഞങ്ങളുടെ നാട്ടുകാര്ക്ക് ഈ മിഷ്യൻ കൊയ്ത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മെഷ്യൻ നടിലിനെ കുറിച്ചൊന്നും അറിയുകയില്ല ഞങ്ങൾ എല്ലാം സാധാരണ മനുഷ്യർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം ഉഴ്ത് റെഡിയാക്കി കാളകളെ എല്ലാം കാളകളെ കൊണ്ടു വന്ന് നിലമെല്ലാം ഉഴുതു റെഡിയാക്കിയതിന് ശേഷം നെൽച്ചെടികൾ നട്ട് കൊടുക്കുന്നു നെൽ ചെടികൾ നട്ടുകൊടുത്ത് ഒരുമാസം ആവുമ്പോഴേക്കും അതില് ചെറിയ തോതിൽ ജൈവ വളവും പിന്നെ ജൈവ വളവും ഇതും കൂടി ചാണകം ആട്ടിൻ കാഷ്ടം അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നെൽ ചെടിയിലേക്ക് വളമായി ചേർക്കുന്നു